ഹലോ ആ ഹലോ ഇത് എന്റെ പേര് ജിനി എന്നാണേ ഞാൻ ഒരു സോഷ്യൽ വർക്കർ ആണ് അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ഒരു ഡാറ്റ എടുത്തിട്ട് വിളിക്കുവായിരുന്നു അൻസി ഇപ്പോൾ ഫ്രീ ആണോ ആ അപ്പോഴേ എത്ര വയസ്സുണ്ട് കറക്റ്റ് ആയിട്ട് ആ അപ്പം എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് പറഞ്ഞോ അത് ഹോസ്പിറ്റലിൽ പോവാതെ നോക്കാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കാൻ ഇൻസുലിൻ ഒന്നും എടുക്കുന്നില്ലല്ലോ അല്ലേ ആ അമ്മച്ചി വീട്ടിൽ അല്ലേ ഇല്ല ഇല്ല നാട്ടിൽ തന്നെ ആ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നു വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കുവാണോ അതോ എവിടെയെങ്കിലും ഒക്കെ പോകുന്നോ അപ്പോൾ പള്ളിയിൽ പോവാറുണ്ടോ പള്ളിയിൽ കൃത്യമായിട്ട് അങ്ങനെ കു കുർബാനയ്ക്ക് എന്നല്ല അല്ലാണ്ടെ ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും പള്ളിയിൽ പോകും ആൾക്കാരുമായിട്ടൊക്കെ സംസാരം അതെല്ലാം ഉണ്ടോ കൊണ്ടുപോവാറുണ്ട് അതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്നു വെച്ചാൽ എന്നോട് ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ല നോക്കുന്നേ ഉളളൂ വേറെ എന്താണ് പറയുക വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നോ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ് ഇപ്പോൾ വെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ

അത് അല്ലാണ്ടേ ആയിട്ട് എന്തെങ്കിലും ഈ കുടുംബശ്രീയോ അങ്ങനെ എന്തിനെങ്കിലും ഒക്കെ ഉണ്ടോ കുടുംബശ്രീയിലൊക്കെ ഉണ്ടോ പിന്നെ അല്ലാണ്ടെ എന്താണ് എന്നോട് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ പേടിക്കണ്ട വേറെ ഒന്നും അല്ല എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുവോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ ആ വീട്ടിൽ ഉള്ളവരൊന്നും അങ്ങനെ കുഴപ്പം ഒന്നും ഇല്ലല്ലോ അല്ലേ ഈ ഇതിന്റെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിന് ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറിനെ തന്നെയാണോ കാണിക്കുന്നത് അതോ സ്ഥിരമായിട്ടേ